ഹലോ ഹലോ ഞാൻ അഞ്ചിതയാണ് ഇത് ഫ്രൂട്ട്സ് വിൽക്കുന്ന കടയല്ലേ ആ ആ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഓർഡർ ചെയ്യാനായിരുന്നേ വീട്ടിലേക്ക് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാ അവൈലബിളായിട്ടുള്ളത് ഉം ഉം ബെനാന ഏത് ഏത് ബെനാനയാണ് ഉള്ളത് രസകദളിയാണോ ഏത്തപ്പഴം ഉണ്ടോ ഓക്കെ ആ ആ ആ ആ ചക്കയുണ്ട് ചക്ക പഴുത്തതാണോ ഉള്ളത് അതോ പച്ചയാണോ ഉള്ളത് ആ ഉം ഉം ഉം ആ നെല്ലിക്കയുണ്ട് ഉം ഉം ഉം ഉം ഉം മ് മ് പപ്പായ ഉണ്ടോ പപ്പായ ഇല്ല ആ ആ ആ ആ ആ അല്ല അല്ല ഇതെനിക്ക് ഇന്ന് ഇന്നത്തെ ഇന്നത്തെ ആവശ്യത്തിനായിരുന്നു അതെ അതെ അപ്പോൾ നെല്ലിക്ക എങ്ങനെയാ റേയ്റ്റ് വരുന്നത് കിലോയ്ക്ക് എത്രയാ മുപ്പത് രൂപയാണ് നെല്ലിക്ക അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡെലിവർ ചെയ്യാനായിട്ട് പറ്റുമോ ഞാൻ ഓർഡറ് തന്നാൽ ഹോം ഡെലിവറിയുണ്ടോ ഓക്കെ ഓക്കെ അപ്പോൾ

ആ ആ ഓ ഓ ഈ മൂന്നും കൂടെ ഒക്കെ ആ ആ അതിൽ ഏത് പഴമാ വരുന്നത് ഇഷ്ടമുള്ള എനിക്കിപ്പോൾ രണ്ട് ഐറ്റം പഴം എടുക്കാനായിട്ട് പറ്റുമോ ആ ഓഫറിന്റെ ആ അങ്ങനെയാണെങ്കിൽ എനിക്കൊരൂ ഒരു കിലോ ഏത്തപ്പഴവും ഒരു അരക്കിലോ രസകദളിയും കൂടി അത്തിന്റെയകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ അതുപോലെത്തന്നെ ചക്ക നിങ്ങൾക്ക് ക്ലീൻ ചെയ്താണോ തരുന്നത് അതോ ഈ മുള്ളോടുകൂടിയാണോ തരുന്നത്

ആത് മ് അപ്പോൾ അത് എത്ര എത്ര കിലോയാണ് എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ചക്കയുടെ അ മ് മ് മ് ആ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് മൂന്നും എൻ്റെ വീടിൻ്റെ അടുത്ത് കൊണ്ട് വന്ന് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റും

ആ ലൊക്കേഷൻ ഇവിടെ ആ ശ്രീകാര്യം ഇല്ലേ ശ്രീകാര്യം ശ്രീകാര്യത്തിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള വീടാണ് ഇപ്പം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ആ പച്ച കളറ് വീടാണ് അപ്പോൾ അവിടെ എത്ര മണിക്ക് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും ആ ആ ഓക്കെ ഓക്കെ ആ ഒരു ടൈമിൽ അപ്പോൾ ആളു കാണും അപ്പോൾ ഈ നമ്പറിൽ ഇവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതിയോ ആ അതെ അതെ അതെ

ആ ആ ഉം ഉം ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ അത് മതിയോ ആ പറഞ്ഞോളു പറഞ്ഞോളു ണയൻ ഫൈവ് സിക്സ് സവൻ ഫൈവ് ഏയ്റ്റ് വൺ ടു

ഓക്കെ ഓക്കെ

ഓക്കെ അപ്പം എന്തേലും ഡിലേ വരുവാണ് എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ വിളിക്കാം ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ എത്തിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഓക്കെ അപ്പം എത്തുമ്പം പൈസ കൊടുത്താൽ മതിയല്ലോ ഇപ്പോൾ പേ ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ ആ ആ ആ ആ ഓക്കെ കയ്യിൽ തരാം ഡെലിവറി ചെയ്യുമ്പോൾ തരാം ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ ഇല്ല ഇല്ല ഇല്ല വേറൊന്നും വേണ്ട ഇത് മതി മതി മതി ഇത് മതി ഓക്കെ താങ്ക് യൂ താങ്ക് യൂ മ്